ഹലോ ആ ആരാണ് ആ ആ ആ ജയൻ ടീച്ചർ ഓക്കെ ആ

ആ ആ ആ

ആ പത്തമ്പലം സ്കൂൾ മിക്സഡ് സ്കൂൾ ആണല്ലോ മിക്സഡ് സ്കൂൾ ആണല്ലോ അപ്പം ആൺ ആൺപിള്ളേരുടെയും പെൺപിള്ളേരുടെയും ഉണ്ട് ആ ആ ആ

ഓക്കെ ഓക്കെ എത്ര പേരുണ്ട് എത്ര പേരുണ്ട് നൂറ്റൻപത് നൂറ്റൻപത് ആ ഒരു ആൺകുട്ടികളുടേതിന് ഒരു ജോഡിക്ക് നിങ്ങൾ എങ്ങനെയാണ് ബഡ്ജറ്റ് എത്ര രൂപ ഞങ്ങൾ ഡിസ്കൗണ്ട് തരണം ഡിസ്കൗണ്ട് ഇടണമായിരിക്കും ആൺകുട്ടികൾക്ക് ഒരു നാനൂറ് രൂപ ഇടാം ആൺകുട്ടികൾക്ക് ഒരു ന നാനൂറ് രൂപ പെൺകുട്ടികൾ ആ എഴുപത്തഞ്ച് ഉണ്ടോ രണ്ട് പെ രണ്ട് കൂട്ടരും കൂടെ അല്ലേ നൂറ്റൻപത് ആ നാനൂറ് രൂപ ആ ആ പെൺകുട്ടികൾക്ക് അഞ്ഞൂറ് അത് എന്തുവാ പാവാടയും ബ്ളൗസുമാണോ അതോ ചുരിദാർ ടോപ്പും

ആ അത് മതി ചുരിദാറിൻറെ ഇതല്ല ആ കോട്ടും മതി അപ്പോൾ അത് ഒരു അഞ്ഞൂറ് രൂപ രണ്ടുംകൂടി അഞ്ചും നാലും ഒൻപത് തൊള്ളായിരം രൂപ ആൺകുട്ടികൾക്ക് നാലും അത് എങ്ങനെയാണെന്നുവെച്ചാൽ എത്ര പേരുണ്ടെന്ന് നിങ്ങൾക്ക് എണ്ണം അറിയാമല്ലോ എണ്ണം തരാം ഒരു മീ ആ ആ രണ്ട് പേരുടെ തിരിച്ച് തന്നുകഴിഞ്ഞാൽ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എങ്ങനെയെങ്കിലും എത്രാം തീയതിയിലത്തേക്കാണ് നിങ്ങൾക്ക് വേണം എത്ര തുറക്കാനേ അത് നേരത്തെ പറയേണ്ടതായിരുന്നു നിങ്ങൾ ആ നിങ്ങളേ ആ ആ അത് ആ ആ

ഓ ആ ആ എന്നാൽ ആ ഒരു മീറ്റർ ആകട്ടെ ആ അപ്പോൾ കുഴപ്പമില്ല നിങ്ങൾ ആ എണ്ണം ഒന്ന് എനിക്ക് എടുത്ത് തരണം അത് എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു വീട്ടിൽ നിന്ന് രണ്ട് പേർ ഉള്ളവരുടെ പ്രത്യേകം തരണം അവർക്കൊരു അഡ്ജസ്റ്റ്മെൻറ് ചെയ്യാം അളവ് എടുക്കാനായിട്ടുള്ള നിങ്ങൾ ഞാൻ അങ്ങോട്ട് വരണ്ടേ അപ്പോൾ ഒരുമിച്ച് എടുക്കാമല്ലോ ആ അന്നേരം എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് എടുക്കാമല്ലോ ആ അടുത്ത തിങ്കളാഴ്ച ഒരു ഉച്ച കഴിഞ്ഞേ രണ്ട് മണിയോടുകൂടി നിങ്ങൾ സമയം എനിക്ക് തരാമെങ്കിൽ ഞാൻ അന്നേരത്തേക്ക് വരാം അടുത്തത് ആ വിളിച്ചറിയിച്ച് എന്നോട് പറഞ്ഞോ ആ ആ ഒരു ഒരു മാസം എടുക്കും എന്തായാലും മൊത്തം തയ്ക്കാൻ ഞാൻ നോക്കട്ടെ ഓ മൂന്ന് ആഴ്ച എങ്കിൽ ഇരുപത്തൊന്ന് ദിവസം ആ തയ്ക്കുന്നത് അനുസരിച്ച് അങ്ങ് കൊണ്ട് പോയിക്കോ എതായാലും ആ ബാക്ക് അടിച്ച് ബാക്ക് അടിച്ച് ആ ആ ആ ആ ഇല്ലില്ല അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് പോലെ ഇരിക്കും നിങ്ങൾ താമസിച്ച് വന്ന പിള്ളേർക്ക് നിങ്ങൾ ഇത്തിരി കണ്സെഷൻ കൊടുക്കണം ആ ആ ആ ആ കുഴപ്പമില്ല രണ്ട് ജോഡി വീതം ഉണ്ടെങ്കിൽ ഒരു ജോഡി ഒരു ജോഡി ആദ്യം തരാം ഏതായാലും ശരി ആ ശരി ശരി എന്നാൽ ഓക്കെ ഓക്കെ ആ തിങ്കളാഴ്ച രണ്ട് മണി ഓക്കെ ഓക്കെ